ഹാലോ അതെ സാർ ഇതഗ്നീ ലൈഫിൻഷൊറൻസ്സാണ് പറഞ്ഞോളു അ അ ഇല്ലില്ല നമ്മൾ കറക്ഷൻസ്സും കൊടുക്കുന്നൊണ്ട് അപ്പോൾ ഏതാണ് സാറിൻ്റെ മോഡലേതാണ്

അതേല്ലെ ആ അപ്പം ഇപ്പോൾ വാങ്ങീതേ ഉള്ളു കുറച്ച് കാലായതേ ഉള്ളു വാങ്ങീട്ട് ആണല്ലെ ആ അപ്പോൾ സാധാരണ ഇൻഷുറൻസെടുക്കാണ്ട് വണ്ടി റോഡിൽ ഓടിക്കരുതെന്നാണ് പറയാറ് അപ്പോൾ ഞാനിപ്പം എന്തായാലും നമ്മുടെ കൈലുള്ള ഇൻഷുറൻസിൻ്റെ ഡീറ്റെയ്ൽസ്സ് പറഞ്ഞ് തരാം സാറിന് നമുക്കിപ്പം മൂന്ന് ഓപ്ഷൻസ്സ് എവേയ് ഉണ്ടാവും അത് തേഡ് പാർട്ടി ഇൻഷൊറൻസ്സ് അതല്ലാന്നൊണ്ടെ കോമ്പ്രിഹെൻസീവ് എന്ന് പറഞ്ഞ പോളിസി അതല്ലാന്നൊണ്ടെ ബമ്പർ ടു ബമ്പർന്ന് പറയും ഇതിൽ തേഡ് പാർട്ടീന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിക്ക് ഉണ്ടാകുന്ന അപകടങ്ങളൊന്നും അതിൽ കവറാവില്ല അതായത് നമ്മൾ വണ്ടി മൂലം വേറൊരാൾക്കൊണ്ടാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ അതിൽ കവറാവുള്ളു നമ്മുടെ വണ്ടി അപ്പോൾ അതിൽ കോവേഡാരിക്കില്ല അതെ അതെ അതേസമയം കോമ്പ്രിഹെൻസീവ്ന്ന് പറയുമ്പോൾ അത് നമ്മുടെ വണ്ടിക്ക് വേ പറ്റുന്ന അപകടങ്ങളും അതിൽ ഉൾക്കൊള്ളും പക്ഷേ മിക്ക സാധനങ്ങളും മൊത്തത്തിൽ നമുക്കതിനെ ക്ലെയിം ചെയ്യാമ്പറ്റില്ല ഇപ്പോൾ ബമ്പർ ടു ബമ്പറും കോമ്പ്രിഹെൻസീവും ഒരേപോലെത്തെയാണ് പക്ഷേ ബമ്പർ ടു ബമ്പർന്ന് പറഞ്ഞാൽ എല്ലാ പാർട്സും വണ്ടീടെ എന്തു പ്രെശ്നം ഉണ്ടെങ്കിലും അത് നമുക്ക് ഈ ഇൻഷൊറൻസ്സ് വഴി ക്ലെയിം ചെയ്യാമ്പറ്റും അ ഇപ്പോൾ സിറ്റി ആവുമ്പോൾ നമുക്ക് ഇപ്പോൾ തേർഡ് പാർട്ടി എടുക്കാനാണെങ്കിൽ വർഷാ വർഷം എണ്ണായിരം രൂപ അടുപ്പിച്ച് വരും അതേസമയം കോമ്പ്രിഹെൻസീവാണെങ്കിൽ അതൊരു പതിനയ്യായിരം രൂപ അടിപ്പിച്ചായിരിക്കും അതേ സമയം ഇപ്പോൾ നമുക്ക് ബമ്പർ ടു ബമ്പർ എടുക്കാനാണെങ്കിൽ ഏകദേശം ഇരുപത്തയ്യായിരം രൂപ അടുപ്പിച്ച് വരും ആ ഏ എങ്ങനാ സാറേ അതേ അതും നമ്മളീ ബമ്പർ ടു ബമ്പർ എടുത്താൽ അതെല്ലാം കവറാകും പക്ഷേ ഈ തേഡ് പാർട്ടിയോ അതല്ല കോമ്പ്രിഹെൻസീവാണെങ്കിൽ അതൊന്നും അതിൽ ഉൾക്കൊള്ളില്ല ആ പിന്നെന്താ സാറ് സാറിൻറ്റേ വണ്ടീടെ റെജിസ്ട്രേഷൻ ഇതും റെജിസ്ട്രേഷൻ ബുക്കും പിന്നെ സാറിൻറ്റൊരാധാർക്കാഡും മാത്രം കൊണ്ട് വന്നാൽ മതി നമുക്ക് ബാക്കി ഡീറ്റേയ്ൽസക്കെ അപ്പം തന്നെ ചെയ്തെടുക്കാമ്പറ്റും ഇതക്കെ പെട്ടന്ന് നമക്കാക്ച്വലീ ഇത് ഫോണിക്കൂടെത്തന്നെ ചെയ്യാമ്പറ്റും നമ്മുടെ സ്വന്തമായിട്ടൊരു ആപ്പൊണ്ട് ഇവിടെ കമ്പനീടെ അപ്പം അതീക്കൂടെ തന്നെ സാർനിത് യൂസ്സ് ചെയ്ത് ചെയ്യാമ്പറ്റും അഗ്നീ അഗ്നീ ഇൻഷൊറൻസ്ന്ന് തന്നെയാണ് അതെതെ അ ശരി ഓക്കെ താങ്ക് യൂ